ഇപ്പോൾ എനിക്ക് സഹോദരങ്ങൾ ഉണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒരനിയനും ഒരനിയത്തിയുമാണ് ഉള്ളത് ഇപ്പോൾ ഇവ ഇവരുടെ മൂന്നിലും വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വഭാവത്തിൽ തന്നെയാണ് കൂടുതലായിട്ടും വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉള്ളത് പലർക്കും പല സ്വഭാവങ്ങളാണ് ഒരാൾക്ക് ദേഷ്യമാണെങ്കിൽ ഒരാൾക്ക് വലിയ ദേഷ്യമോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ ഒരു സ്വഭാവ ഗുണങ്ങളാണ് കൂടുതലായിട്ട് ഇവർക്ക് ഉള്ളത് പിന്നെ സാമ്യതകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എന്താ പറയുക ഇപ്പോൾ കണ്ണുകള് എല്ലാം മൂന്നുപേരുടെയും സെയ്മ് ആണ് പിന്നെ ആ അല്ലാത്ത വേറെ സാമ്യതകളോ കാര്യങ്ങളൊന്നും ഇല്ല മെയ്നായിട്ട് സ്വഭാവത്തിലാണ് കൂടുതലായിട്ടും വ്യത്യാസം പിന്നെ ഡ്രസ്സ് ധരിക്കുന്നതില് പലതരം സാ സാമ്യങ്ങള് കാര്യങ്ങളൊക്കെ ഇവര് കാണിക്കാറുണ്ട് അപ്പോൾ എന്നെപ്പോലെ ആയിരിക്കുകയില്ല ബാക്കിയുള്ള ആൾക്കാര് ബാക്കിയുള്ള എൻ്റെ അനിയനും അനിയത്തിയും ഒന്നും അങ്ങനെയായിരിക്കുകയില്ല അപ്പം നല്ല രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം പിന്നെ അവരുടെ നടത്തമൊക്കെ വേറെ രീതിയിലൊക്കെയാണ് അതായത് കുറച്ചും കൂടെ വ്യത്യസ്ത രീതിയിലാണ് നടത്തവും അവരുടെ അതായത് ലാംഗ്വേജ് അതായത് അവര് വർത്താനം പറയുന്നതിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെക്കെയാണ് മെയ്നായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം